സ്കൂൾ ഒത്തുചേരലുകള് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ് അതൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ കോളേജ് കോളേജ് തലങ്ങളിൽ നിന്ന് പിന്നെ ജോലി ജോലി ആയിട്ട് പലരും എല്ലാവരും പല സ്ഥ വിദേശങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ പോകുന്നു ജോലിയെടുത്ത് ജീവിക്കുവാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പിന്നെ ഒത്തുചേരല് ഒത്തുചേരല് എന്ന പ്രയോഗം ഉണ്ടായത് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ഫോണിന്റെ വരവാണ് ഈ ഫോണിൽ കൂടിയാണ് ഈ ഒത്തുകൂടൽ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പൊൾ പഴയ ആൾക്കാർക്ക് സ്കൂളിൽ ഈ ഒത്തുചേരൽ പ്രക്രിയയിൽ വലിയ റോളില്ല അവരൊന്നിലും പങ്കെടുത്തിട്ടും ഉണ്ടാവില്ല സാധ്യതയില്ല കാരണം അവർക്ക് ഇപ്പോഴും അറിയില്ല്യ സത്യമായിട്ടും ഫോണിലെ പേജുകള് നോക്കാനോ അതില് കമൻറ് ചെയ്യാനോ അതില് അഭിപ്രായം പറയാനോ അത് തെറ്റാണെന്ന് പറയാനോ ഒന്നിനും അവർക്ക് കഴിയില്ല അല്ലാതെ ഞാ ഞാൻ ഏതെങ്കിലും ഒത്തുചേരലില് പങ്കെടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പഴയ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ പഴയ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒത്തുചേരലുകള് ഒരനുഭവം വളരെ അപൂർവമാണ് ഇല്ലാന്ന് തന്നെ പറയാം അതൊക്കെ പുത്തൻ തലമുറയുടെ ഭാവനകള് മാത്രമാണ്